എൻ്റെ ജീവിത ലക്ഷ്യമായിരുന്നു ഒരു ടീച്ചറാകുക എന്നുള്ളത് പണ്ട് എൻ്റെ അച്ഛനും അമ്മയൊക്കെ വീട്ടിൽ ഒരുപാട് കഷ്ട്ടപെടുന്നത് കാണുമ്പോൾ തൊട്ട് തുടങ്ങിയതായിരുന്നു എനിക്കും അവരെ സഹായിക്കണം അവരെ സഹായിക്കാനായിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യണം എന്ന് വളരെ അധികം ആഗ്രഹമായിരുന്നു അപ്പം കുഞ്ഞായിരിക്കുന്നതിൽ തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുവോ അപ്പോൾ മനസ്സിൽ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ടീച്ചിങ് ഫീൽഡൊക്കെ ആവാം ട്യൂഷനിലൂടെ നമ്മുക്കൊരു വരുമാനം ഒപ്പിക്കാം എന്നുള്ളത് അതു പോലെ തന്നെ അതിന് വേണ്ടി ഒരുപാട് പരിശ്രമിച്ചു ഞാൻ എൻ്റെ പത്താം ക്ലാസ്സിൽ തന്നെ ഞാൻ കുറച്ച് കുഞ്ഞു പിള്ളേർക്കായിട്ടുള്ള എല്ലാ ട്യൂഷൻ ഞാൻ പഠിക്കാൻ പോകുന്ന സ്ഥലത്ത് തന്നെ ഒരു ഞാൻ ട്യൂഷന് പഠിക്കാൻ പോകുന്ന സ്ഥലത്തന്നെ കുറച്ച് കുഞ്ഞ് പിള്ളാർക്കു കുറച്ച് ട്യൂഷൻ എടുത്ത് അതിൽ നിന്ന് ഉള്ള ഒരു ചെറിയ വരുമാനം തന്നെ ഞാൻ നേടി തുടങ്ങിയിരുന്നു അങ്ങനെ കുഞ്ഞു പിള്ളേർക്ക് ട്യൂഷൻ എടുത്ത് ആദ്യമേ തന്നെ ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഒരു പടി കടന്നു വരികയായിരുന്നു അങ്ങനെ തുടങ്ങിയ ആ ഒരു ടൈം ഇപ്പോൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ വീട്ടിൽ നല്ല പത്തിരുപത് പിള്ളേരായിട്ട് നല്ലോണം ട്യൂഷൻ എടുത്ത് പോവാൻ പറ്റുന്നുണ്ട് നമ്മുക്കൊരു എന്തെങ്കിലും ഒരു ലക്ഷ്യം വേണം എന്ന് കരുതി കുഞ്ഞു പ്രായത്തിലെ തോന്നിയ ഒരു ആഗ്രഹമായിരുന്നു ടീച്ചിങ്ങ് ഫീൽഡ് ടീച്ചറെന്നെ ആവാന്നുള്ളത് നമ്മൾ പഠിക്കുന്നതിലൂടെ നമുക്ക് വീണ്ടും വീണ്ടും പഠിക്കാൻ പറ്റുന്നൊരു മേഖല തന്നെയാണ് ടീച്ചിങ് എന്ന് പറയുന്നത് അതാ കുഞ്ഞ് പ്രായത്തിൽ തന്നെ എനിക്ക് എൻ്റെ വീട്ടുകാരെ സഹായിക്കണം എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞാൻ ആ പത്താം ക്ലാസ്സിൽ തന്നെ ഞാൻ കൊച്ചു പിള്ളേർക്ക് ഞാൻ എൻ്റെ പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടവും ഞാൻ അതുപോലെ തന്നെ ടീച്ചിങ് ഫീൽഡ് പോലെ ട്യൂഷനിലൂടെ കടന്നു പോയിക്കൊണ്ടേയിരുന്നു അന്നു തൊട്ടേ സ്വന്തമാക്കാൻ അച്ഛൻറ്റെം അമ്മേം അവരെ സഹായിക്കുന്ന പോലെ കുഞ്ഞു കുഞ്ഞു വരുമാനത്തിലൂടെ തന്നെ അവർക്ക് എന്തെങ്കിലും ഒക്കെ സഹായം ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടാണ് തന്നെയാണ് നമ്മൾ വളർന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ചെറിയ വരുമാനം അതിൽ തന്നെ ഒരുപാട് ഒരുപാട് സന്തോഷത്തിലേക്കായിരുന്നു നമ്മൾ അത് കൊണ്ട് വരുന്നത് ഇപ്പോഴും ഞങ്ങൾ ഞാൻ ആ ഒരു ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും ആയിട്ടൊരോ സ്ട്രഗിൾ ചെയ്ത്കൊണ്ടാണ് ജീവിക്കുന്നത് ഇപ്പോഴും ഞങ്ങൾക്ക് അത് കൊണ്ട് എനിക്കത് കൊണ്ട് ഈ ട്യൂഷൻ ഉണ്ടായോണ്ട് ഒരു സ സ വൺ സൈഡ് വരുമാനമാർഗ്ഗയിട്ടതിനെ കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ടീച്ചിങ് ഫീൽഡ് എനിക്ക് അത്രെയും ഇഷ്ടമായൊണ്ടെന്നെ അന്ന് തൊട്ട് ഇന്ന് വരെയും നല്ലോണം അതിൽ പോകാൻ പറ്റിയിട്ടുണ്ട് അന്ന് ആ എന്നും ഞാനിപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന പിള്ളാരെടുത്ത് ഞാൻ പറയുന്നത് നമ്മുടെ ഏറ്റവും കുഞ്ഞു പ്രായത്തിൽ നമുക്കൊരു എപ്പോഴും ഒര് ടീച്ചിങ് ഫീൽഡ് തന്നെ നമുക്ക് ആഗ്രഹം അത് വലിയ ലക്ഷ്യമാക്കിയെടുത്തിട്ട് വലിയ ജോലി മേടിച്ച് വലിയ സാലറിയോടു കൂടി ടീച്ചിങ് ആയില്ലെങ്കിൽ പോലും നമുക്കൊരു ട്യൂഷൻ എല്ലാവർക്കും എന്തായാലും അറിയാം നമുക്കൊരു ചെറിയ വരുമാനത്തിലൂടെ നമുക്ക് നമ്മുടെ ജീവിതം ഇപ്പോഴും കുറച്ച് നമുക്കയിട്ട് തന്നെ സേഫ് ആക്കാൻ പറ്റുന്നൊരു മേഖല തന്നെയാണ് ഈ ടീച്ചിങ്ങായിട്ട് എടുക്കുന്നത് അതുപോലെ നമുക്ക് ഒരുപാട് കുഞ്ഞു പിള്ളേരായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് ഇരിക്കുമ്പം തന്നെ നമ്മുക്ക് കുറച്ച് നമ്മുടെ എന്തെല്ലാം പ്രശ്നം ഉണ്ടോ അതിൽ നിന്നൊക്കെ നമുക്ക് ഒരു റിലീഫ് കിട്ടും അങ്ങനെ ഞാൻ അന്ന് തുടങ്ങി ഞാൻ എൻ്റെ പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടവും ഞാൻ പഠിക്കുമ്പം പോലും എനിക്ക് അന്ന് എൻ്റെ വൈകുന്നേരം സമയങ്ങളിൽ ഞാൻ ട്യൂഷൻ എടുത്തും പിള്ളാരുടെ കൂടെ ചിലവഴിച്ചും അവരെ പഠിപ്പിച്ചും അവരുടെ കൈന്ന് കുറെ പഠിച്ചും അങ്ങനെ ഞാൻ ഇപ്പോഴും അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തു കൊണ്ടേ ഇരിക്കുന്നു അതിലൂടെ ഇപ്പോൾ ഈ പത്ത് മുപ്പത് പിള്ളേർ ആയി വീട്ടിൽ ആയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷാണ് ന നമുക്ക് നമ്മുടെ സമയം പോകുന്നതൊന്നും നമുക്കറിയില്ല നമ്മളത് ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യത്തിലോട്ട് എത്തി ചേർന്നതിലാണ് എത്തി ചേർന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു എന്ന പോലെ ഒരു സന്തോഷമാണ് എനിക്ക് ഈ ഒരു ട്യൂഷൻ എടുക്കുന്നത് അതുപോലെ നമുക്ക് നമ്മളെ ഞാനും എല്ലാവർക്കും റെഫറ് ചെയ്യുന്നൊരു സാധനം തന്നെയാണ് ടീച്ചിങ് ടീച്ചിങ്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു അധ്യാപക ഗുരു ബന്ധം സ്റ്റുഡൻറ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധം ഗുരു ശിക്ഷ ബന്ധത്തെക്കാൾ കൂടുതലായിട്ട് നമുക്ക് അവരോട് അവരുടെ ഒരു മെൻററായിട്ട് നിൽക്കാൻ കഴിയും അവരെ അവരുടെ എല്ലാ കാര്യങ്ങളും കേൾക്കാൻ കഴിയും നമുക്ക് കുട്ടികൾക്ക് എപ്പോഴും വീട്ടിൽ തന്നെ വീട്ടിൽ പല പ്രശ്നങ്ങൾ അപ്പോൾ വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് പുറത്തോരു ഒരു ടീച്ചിങ് ടീച്ചർ നല്ലൊരു ഫ്രണ്ടായിട്ട് കൂടെ നിൽക്കാണെങ്കിൽ അവർക്ക് അവർക്കവരുടെ അവർ അവർക്കൊരു റിലീഫ് കിട്ടും ഇവിടെ ഇതാണ് എനിക്ക് നല്ലോണം തോന്നിട്ടുള്ളത് അതുകൊണ്ട് നേ ഞാനും എനിക്ക് ഭയങ്കരമായിട്ട് ടീച്ചേർസ് എന്ന് പറയണത് കഴിഞ്ഞാൽ എനിക്ക് അവരോട് റെസ്പെക്ടിന് ഉപരി അവരോട് ഭയങ്കര സ്നേഹമായിരിക്കും അതുപോലെ എനിക്ക് ആ സ്നേഹം ഈ കുഞ്ഞു പിള്ളേരെ പഠിപ്പിക്കുമ്പോഴാണെങ്കിലും പത്ത് മുപ്പത് പിള്ളാരിങ്ങനെ പഠിക്കുമ്പോൾ അത്രയും അവർ നമ്മളോട് അത്രയും കാര്യമായിട്ടിരിക്കുമ്പോൾ നമുക്ക് പുറത്തു നിന്ന് ഒരു വീട്ടിനുള്ളിൽ തന്നെ ഉള്ളവരാണെങ്കിൽ നമുക്ക് ഭയങ്കര സ്നേഹവും നമുക്ക് കിട്ടുന്ന ഒരു പരിഗണന ഒക്കെയാണ് ഞാൻ അതിൽ നിന്നും മന നമുക്ക് നമ്മുടെ കുറച്ച് പ്രശ്നങ്ങൾ നമ്മളെ ആ ഒരു കുറച്ച് മണിക്കൂറിനുള്ളിൽ അത് മറക്കാൻ ആ എത്ര നേരം നമ്മൾ പഠിപ്പിക്കുന്നുവോ അത്രയും മണിക്കൂർ നമുക്കാ ഒരു പ്രശ്നങ്ങൾ എല്ലാം നമുക്ക് സന്തോഷമായിട്ട് നിൽക്കാൻ കഴിയും അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെയൊരു ലക്ഷ്യത്തിൽ എത്തി ചേർന്ന് കൊണ്ടേ ഇരിക്കുന്നു ഞാൻ ഒരിക്കലും ടീച്ചിങ് ഫീൽഡ് നമുക്ക് നമ്മുടെ ലക്ഷ്യമാണെന്ന് പറഞ്ഞാൽ പോലും അത് ഒരിക്കലും എത്തി ചേർന്നു കഴിഞ്ഞു ഇനി അവിടം കൊണ്ട് തീർന്നു എൻ്റെ ലക്ഷ്യം സാധിച്ചുന്ന് ഒന്നും പറയാൻ കഴിയൂല ടീച്ചിങ് ഫീൽഡിൽ എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര പിള്ളേരെ പഠിപ്പിച്ചൂന്ന് നമ്മുടെ ഒരുപാട് പഠിപ്പിച്ചോണ്ട് ഇരുന്നാൽ പോലും നമുക്ക് നമ്മൾ നമ്മളും പഠിക്കുകയാണ് ഇനി നമ്മളൊരു ലക്ഷ്യത്തിൽ ചെന്ന് ചേർന്നു നമ്മുടെ ആഗ്രഹം നടന്നു എന്നാൽ അല്ലാതെ നമുക്ക് ഒരു നമ്മുടെ ലക്ഷ്യമാണ് നമുക്കിഷ്ടമാണ് ടീച്ചിങ് എന്ന് കരുതി നമുക്ക് ഒരിക്കലും അതൊരു എപ്പോഴും നമ്മൾ അതിൽ നിന്ന് നമ്മൾ എപ്പോഴും വളർന്നു കൊണ്ടേ ഇരിക്കുകയാണ്